ആ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഏതോ ഏതാന്നെന്നു വെച്ചാൽ

റാമും ആനന്ദീയെന്നു പറയുന്നൊരു പുസ്തകമാണ് അഖിൽ പി ധർമ്മജൻ്റെ ഒരു പുസ്തകമാണത് ആ പുസ്തകമെന്നു പറയുന്ന അതൊരു യഥാർത്ഥത്തിൽ നടന്ന അയാളുടെ ആ ഒരു കഥാകാരൻ്റെ അനുഭവത്തിൽ നടന്ന കഥ വിവരിച്ചേക്കുന്നൊരു പുസ്തകമാണ് ആ അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രമെന്നു പറയുന്നത് ആനന്ദ് റാമും ആനന്ദിയാണ് റാമെന്നു പറയുന്നതിനകത്തൊരു ചെറുപ്പക്കാരനാണ് ആനന്ദിയെന്നു പറയുന്നത് അതിലെയൊരു അതിലെ നായികയാണ് ഈ റാമിനുണ്ടാകുന്ന അനുഭവങ്ങളെയാണ് റാമിന് റാം ഉണ്ടാകുന്ന അനുഭവങ്ങളെ പറ്റി ക കഥ അല്ല എഴുത്തുകാരനുണ്ടായനുഭവം ആണ് റാമിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നതു പറഞ്ഞ് വായിച്ചിരിക്കുന്നത് അതിൽ ആ എഴുത്തുകാരനുണ്ടായ അനുഭവമാണ് റാമിലൂടെ നമ്മളെ ചൂണ്ടി കാണിക്കുന്നത് അതിൽ ആ റാമതിലെ നായകനാണ് റാം ഭയങ്കരമായിട്ട് സിനിമ സിനിമ ഇഷ്ടപ്പെട്ട് സിനിമ പഠിക്കാനായിട്ട് പിടിക്കാനായിട്ടു പഠിക്കുന്നത് ഭയങ്കരമായിട്ടിഷ്ടപ്പെട്ടൊരാളാണ് ആ അതുകൊണ്ടു തന്നെ അദ്ദേഹം ചെന്നൈയിലേക്ക് ട്രെയിൻ ട്രെയിൻ കയറുന്നതും ട്രെയിനിലുണ്ടാകുന്നനുഭവങ്ങളും പിന്നെ പോയി നിൽക്കുന്നിടത്തെ അനുഭവങ്ങളും കോളേജിലെ അനുഭവങ്ങളും ഒക്കെയാണ് അതിൻ്റെ നായികയാണ് ആനന്ദി ആനന്ദി അവിടുത്തെ റാം പഠിക്കുന്ന കോളേജിലെ റിസ്പഷനിസ്റ്റാണ് ആ അങ്ങനെ അവിടെ വെച്ചാണ് ഹാ ആ റാം ആനന്ദീനെ ആദ്യമായിട്ട് കണ്ടു പിടി കണ്ടു മുട്ടുന്നത് അതിൽ റാമിനുണ്ടായ അനുഭവങ്ങളും കഷ്ടപ്പാടുകളും കഷ്ടപ്പാടുകളെ എങ്ങനെ തരണം ചെയ്യണമെന്നും മറ്റുള്ളവരോടെങ്ങനെ പേരുമാറണമെന്നും മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണമെന്നും അവരോടെങ്ങനെ ഇടപെടണമെന്നൊക്കെയുള്ള കാര്യങ്ങളതിൽ നിന്ന് അത് പിന്നെനിക്കിഷ്ടമുള്ള പുസ്തകമെന്നു പറയുന്നത് ആൽക്കെമിസ്റ്റാണ് ആ പൗലോ കൊയ്ലോ പൗലോ കൊയ്ലോയുടെ ദ ആൽക്കെമിസ്റ്റ് എന്നു പറയുന്ന പുസ്തകമാണ് അതിൽ നമുക്ക് അതിൽ നമുക്ക് അതിൽ നമുക്ക് പറഞ്ഞിരുന്നേയെന്നു പറയുന്നത് എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ എങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പൗലോ കൊയ്ലോയുടെ ഏറ്റവും ആ പ്രശസ് പ്രശസ്തമായ ബുക്കാണ് ദ ആൽക്കെമിസ്റ്റ് എന്നു പറയുന്നത് ആ അതാണ് ഞാൻ വായിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടമായ പുസ്തകം

ആ പുസ്തകത്തിൽ നമുക്ക് വിജയങ്ങളെ എങ്ങനെ നേരിട്ടും വിജയങ്ങളെങ്ങനെ വരിക്കാമെന്നും പരാജയങ്ങളെ തോൽപ്പിച്ച് വിജയങ്ങൾ അതിലൊരു വാക്ക് പറയുന്നുണ്ട് നമ്മളാഗ്രഹിക്കുന്നതെന്തും നമുക്ക് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലത് നേടാൻ സാധിക്കുമെന്നുള്ളത് പൗലോ കൊയ്ലോയുടെ ഒരു പൗലോ കൊയ്ലോയുടെയൊരു വാക്കുകളാണ് അപ്പോൾ അതിന് നമ്മളാഗ്രഹിക്കുന്ന നമ്മളാ ആഗ്രഹിക്കുന്ന എന്തു കാര്യവും നേടാൻ പറ്റുമെന്നുള്ളതാണ് പൗലോ കൊയ്ലോ ആ ബുക്കിലൂടെ ദ ആൽക്കെമിസ്റ്റ് എന്ന ബുക്കിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതു കൊണ്ടു തന്നെ എനിക്ക് പ്രത്യേകമായിട്ടെനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് ആ ഞാനിതൊരു രണ്ടു തവണ വായിച്ചിട്ടുണ്ട് ഈ റാം കെയർ ഓഫ് ആനന്ദിയെന്നു പറയുന്ന പുസ്തകവും ഒരു തവണ വായിച്ചിട്ടുണ്ട് എനിക്ക് വായിക്കാനായിട്ട് ഭയങ്കരിഷ്ടമുള്ള പുസ്തകങ്ങളാണ് ബുക്ക് വിഷ് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണത് ഇപ്പോൾ പൗലോ കൊയ്ലോയുടെ ദ ആൽക്കെമിസ്റ്റ് എന്നു പറയുന്ന പുസ്തകത്തിൽ നിന്നു ഞാൻ പഠിച്ച ഇതെന്നു പറയുന്നത് എന്താ വിജയങ്ങളെ നേരിടാന്നുള്ളതും പരാജയങ്ങൾ ഉണ്ടായാൽ ഇപ്പം നമ്മളാ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് സാധി ച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതുമാണ് ആ ദ ആൽക്കെമിസ്റ്റ് എന്നു പറയുന്ന പുസ്തകത്തിലൂടെനിക്ക് മനസ്സിലായത് പൗലോ കൊയ്ലോ നല്ല വൃത്തിയായിട്ട് അതിൽ പരാമർശിക്കുന്നൊരു കാര്യമെന്നു പറയുന്നത് വിജയത്തെ പറ്റിയാണ് നമ്മളെന്താഗ്രഹിച്ചാലും നമുക്കത് നേടാൻ സാധിക്കുമെന്നുള്ളത് പിന്നെ നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുന്നൊരു കാര്യത്തിൽ നമുക്ക് സക്സസാകാൻ പറ്റുമെന്നുള്ളതുമാണതീന്ന് നമുക്ക് കിട്ടുന്നൊരു ഗുണപാഠം എന്നു പറയുന്നത് പിന്നെ ഇപ്പം റാം കെയർ ഓഫ് ആനന്ദിയെന്നു പറയുന്ന പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണെന്നു വെച്ചാൽ എത്ര കഷ്ടപ്പാടുകളുണ്ടായാലും നമുക്ക് നമ്മുടെയൊരു ലക്ഷ്യം പഠിക്കണമെന്നുള്ളൊരു ലക്ഷ്യം അതെത്ര കഷ്ടപ്പെട്ടിട്ടാന്നേലും അദ്ദേഹം പഠിച്ചു കുറേ ബുദ്ധിമുട്ടുകളുണ്ടായും ഇപ്പം ആനന്ദിയെന്നു പറയുന്ന കഥാപാത്രത്തിന് കുറേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരോട് ദേഷ്യം പോലെയൊക്കെ കാണിച്ച് പക്ഷേ പിന്നാണവളുടെ ഉള്ളിലെ നന്മ മനസ്സിലാകുന്നതും അവളെന്തു കൊണ്ടാണിത്രയും ജോലി ചെയ്യുന്നതെന്നും കഷ്ടപ്പെട്ടു ജീവിക്കുന്നതെന്നും ഹാർഡ് വർക്കാണ് അതിൽ കൂടുതലായിട്ട് പരാമർശിച്ചിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ രണ്ടു പുസ്തകമെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്